ഹലോ നമസ്കാരം ചേട്ടാ ഇവിടെ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എനിക്ക് ചെറിയൊരു വീട് മതി രണ്ടു ബെഡ് റൂം ഒരു ഹാള് കിച്ചൺ ബാത്ത് റൂം അങ്ങനെയൊക്കെ ആയിട്ട് അല്ലല്ല ഫ്ലാറ്റ് വേണ്ട എനിക്ക് ഇൻ്റിപെൻ്റൻ്റ് വില്ല ഒരു വീട് തന്നെ മതി രണ്ടായാലും കുഴപ്പമില്ല എന്താ ചേട്ടാ പറഞ്ഞത് മനസ്സിലായില്ല ആ റേഞ്ച് കിട്ടുന്ന സ്ഥലമായാൽ മതി

ആ എനിക്കൊരു ഫൈവ് തൗസൻ്റ് സിക്സ് തൗസൻ്റ് ഒക്കെ ആ അങ്ങനെ ഒരു അഫോർഡബിൾ പ്രൈസ് അത്രമതി കാണാൻ പറ്റുമോ ഇപ്പോൾ അതെയതെ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് അതെയതെ വർക്ക് ചെയ്യാണ് അല്ല ഞാൻ ചെറിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്

ആ അങ്ങനെ കിട്ടിയാൽ സൗകര്യമായി

അതെങ്ങനെയാണ് റൂമൊക്കെ

ഓക്കെ

അതെയല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പോയാലോ

ഞാൻ നോക്കിയിട്ട് സംസാരിക്കാം ആ ശരി